ഞാൻ ഓൾമോസ്റ്റ് അഞ്ചാം ക്ലാസ് വരെ സ്വന്തമായിട്ടാണ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആറാം ക്ലാസ് എത്തിയ ടൈമിലാണ് എനിക്ക് ഡ്രോയിങ്ങിനായിട്ടൊരു സാറൊക്കെ ആദ്യമായിട്ട് വന്നത് അപ്പോൾ ആറാം ക്ലാസ് എത്തിയ ടൈമിൽ പുള്ളി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു കാരണം ക്ലാസിൽ അത്യാവശ്യം നല്ല രീതിയ്ക്ക് തന്നെ ഞാൻ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പുള്ളിക്കാൻ എന്താ പറയുക നല്ല രീതിയ്ക്കുതന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയ്ക്ക് തന്നെ ഞാൻ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താ പറയുക ഞാൻ വരയ്ക്കുന്ന ഡ്രോയിങ്സൊക്കെ ഓൾമോസ്റ്റ് കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതുപോലെത്തന്നെ ഞാൻ നല്ല രീതിയ്ക്ക് എന്താ പറയുക ഡ്രോയിങ്സിനോട് ഇഷ്ടപ്പെട്ട് എൻ്റെ ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം അപ്പോൾ ഡ്രോയിങ്ങിൽ ഞാൻ നല്ല രീതിയ്ക്ക് തന്നെ എൻ്റെ കഴിവ് തെളയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെതന്നെ ഡ്രോയിങ്ങ് നല്ല രീതിയ്ക്ക് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോണം എന്നുതന്നെയാണ് എൻ്റെ ഒരാഗ്രഹം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊടുക്കുന്നുണ്ട് കൂടുതലും ഞാനിങ്ങനെ പ്രൊഫഷനായിട്ടൊന്നും കരുതിയിട്ടൊന്നുമില്ല എന്നാലും ഡ്രോയിങ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അതു നല്ല രീതിയ്ക്ക് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്